ഞാനെൻ്റെ കസിൻ്റെ കൂടെ ബാംഗ്ലൂരേക്ക് സൈക്കിളിൽ യാത്ര പോയിട്ടുണ്ടായിരുന്നു അതൊരു ഒരു വർഷം മുന്നേയായിരുന്നു ഞാൻ പ്ലസ്ടുയിൽ പഠിക്കുന്ന സമയത്ത് പ്ലസ്ടു കഴിഞ്ഞ് ഞങ്ങൾ പ്ലസ്ടു കഴിഞ്ഞ് ഞങ്ങളുടെ വെക്കേഷൻ സമയത്ത് രണ്ട് സൈക്കിൾ എടുത്തു അതിൽ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്ത് പോവുകയാണ് ഉണ്ടായത്

സൈക്കിളിൽ പോകുന്നത് വേറൊരു അനുഭവം തന്നെയാണ് അതിനു നമ്മൾ പ്ലാൻ ചെയ്യാൻ നമ്മളങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വെക്കേഷൻ സമയത്തായതുകൊണ്ട് എനിക്കങ്ങനെ പ്ലാൻ ചെയ്യേണ്ടി വന്നിട്ടില്ല തിരക്കേറിയ ഷെഡ്യുളുകളിലാണെങ്കിൽ നമ്മൾ സൈക്കിൾ യാത്ര ചെയ്യാൻ വേണ്ടി ചെറിയ സമയം മാത്രം മാറ്റി വയ്ക്കാൻ പാടുള്ളൂ കാരണം സൈക്കിളെന്ന് വച്ചാൽ കുറച്ച് ദൂരം പോകണമെങ്കിൽ തന്നെ അത്യാവശ്യം ടൈമെടുക്കും അപ്പോൾ ഞങ്ങൾ ഇവടെനിന്ന് ബാംഗ്ലൂര് പോയത് അവിടെ എത്തിയത് രണ്ടാമത്തെ ദിവസമാണ് ഫസ്റ്റ് ദിവസം എവിടേയ്ക്കും പോയി സെക്കൻഡ് ദിവസം ഉച്ചയായപ്പോഴേക്കാണ് ഞങ്ങൾ അവിടെ എത്തിയത് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ട് ഈയൊരു സൈക്ലിങ്ങിന് നിങ്ങൾ വലിയ പിന്നെ വലിയ ഇങ്ങനത്തെ ബാംഗ്ലൂര് അല്ലെങ്കിൽ ഇങ്ങനെ സ്ഥലത്തേയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മളത്യാവശ്യമായിട്ടും നമ്മളിങ്ങനെ ടെന്റടിക്കാനുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ റൈഡിങ്ങ് ഗിയേഴ്സ് ഐ മീൻ ജാക്കറ്റ് പാഡ് ഗ്ലൗസ് ഷൂസ് അങ്ങനെ എല്ലാം കരുതണം പിന്നെ വെള്ളം എല്ലാം ഒരു എസ്സൻഷ്യലാണ് ഫുഡ് ഒക്കെ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി കരുതണം പിന്നെ വേണ്ടത്

അങ്ങനെയൊരു ദൂര യാത്രയിലേക്ക് നമ്മൾ സൈക്കിളിൽ പോവുകയാണെങ്കിൽ നമ്മുടെ അതിന് നമ്മൾ കുറേ നമുക്ക് ആവശ്യമുള്ള കാശ് നമ്മൾ പണമായിട്ടുതന്നെ കരുതണം അതല്ലെങ്കിൽ നമ്മുക്കെപ്പോഴും എല്ലാ സ്ഥലത്തും ഈ ഓൺലൈൻ പേയ്മെൻറ് അല്ലെങ്കിൽ കാർഡ് വർക്ക് ചെയ്യാൻ സാധ്യത ഇല്ല